നിങ്ങളുടെ പ്രദേശത്തെ കലാ കരകൗശലമായ മേഖലകൾ സന്ദർശിക്കുന്നതിൻ്റെ സാംസ്കാരിക തത്വത്തിനും പ്രത്യേകത്തിനും അല്ല പൈതൃകത്തിനും എങ്ങനെ സംഭാവന നൽകുന്നു എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരാൾ കരകൗശല വസ്തു ചെയ്യുക ആണെങ്കിൽ അത് അവർ തന്നെയാണ് കാഷ് ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും എല്ലാം ഗെവൺമെൻറ്റയിൽ കയറി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഗെവൺമെൻറ്റിന് നല്ല പൈസ കിട്ടും കാരണം നമ്മൾ വയനാട്ടിതന്നെ ആയതു കൊണ്ട് വയനാട്ടിലെ ഒട്ടേറെ ജനങ്ങൾ ഓരോ കരകൗശല വസ്തുക്കൾ ചെയ്യുന്നുണ്ട് അതവരുടെ എന്താ അണ്ടറിൽ തന്നെ വെച്ചിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് ആ സെയിൽ എന്താന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ റോഡ് സൈഡിലൂടെയും റോഡ് സൈഡിലൂടെയും അങ്ങനൊക്കെയാണ് സെറ്റാക്കുന്നത് അല്ലെങ്കിൽ കടകളിൽ വെച്ച് തന്നെ അവർ വിൽക്കാറും ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പുറം രാജ്യങ്ങളെ പോലെ അവർ ഒരിക്കലും കടയിലല്ല സെയിൽ ചെയ്യുന്നത് ഇവർ സ്വന്തം വീട്ടിലും അങ്ങനെ ഓൺലൈൻ സൈറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയാണ് അവർ സെയിൽ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ലാഭം ലാഭം മാത്രമേ ഉണ്ടാകു കാരണം ഡെലിവറി ഫീ മാത്രം കൊടുത്താൽ മതി ഒരിക്കലും നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഇവിടുത്തെ മൂല്യനിർമാണം നടത്തുന്നത്